ഇപ്പോൾ നമ്മൾ കൂട്ടുക്കാരൊക്കെ ഒത്ത് ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പരിപാടികളൊക്കെ നമ്മൾക്ക് എല്ലാവരുമായിട്ട് നിന്നും ആഘോഷിക്കാൻ പറ്റുന്നതാണ് കൂട്ടുകാർ മാത്രമല്ല വീട്ടുകാരും ഉണ്ടാവും പല ആൾക്കാരും ഉണ്ടാവും നമുക്ക് അറിയാവുന്ന എല്ലാവരേയും നമ്മൾ വിളിച്ചിട്ടൊക്കെയാണ് കൂടുതലായിട്ടും ആഘോഷിക്കുന്നത് ഇപ്പോൾ വിവാഹമാണെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് ആ പന്തൽ കെട്ടാൻ തന്നെ ആൾക്കാർ കുറേപ്പേർ ഉണ്ടാവും പന്തൽ ഡെക്കറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും അപ്പോൾ അതിനൊക്കെ നമ്മൾ വീട്ടുകാരും കുടുംബക്കാർ നാട്ടുകാർ അങ്ങനെ എല്ലാവരേയും നമ്മൾ വീട്ടിൻ്റടുത്തുള്ള എല്ലാവരേയും എകദേശം വിളിക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മെയിനായിട്ട് നമ്മൾ നമുക്ക് നമ്മളാൽ കഴിയാവുന്ന രീതിയിലൊക്കെ അവർക്ക് ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് കുപ്പിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക ഫുഡ് ഇതൊക്കെയാണ് മെയിനായിട്ട് റെഡിയാക്കി കൊടുക്കേണ്ടത് ആ സമയത്ത് എല്ലാവരേയും നമ്മൾ വിളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം അത് നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട് വിവാഹമൊക്കെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മദിനമൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട് ചില സമയങ്ങളിൽ അതായത് ഇപ്പോൾ ഒന്നാം ബർത്ത് ഡേ മകൻ്റെ ഒന്നാം ബർത്ത് ഡേയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ആഘോഷിക്കും പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ എല്ലാവരും വീട്ടുകാരും കൂട്ടുകാരുമൊക്കെ ഒത്താണ് ആഘോഷിക്കാറ്